എന്റെ ആദ്യത്തെ ഓണ്ലൈന് ഷോപ്പിംഗ് അനുഭവം വച്ചാണ് ഞാന് വീണ്ടും ഓണ്ലൈന് ഓര്ഡര് ചെയ്തത് കാരണം ഞാന് ആദ്യം ഓര്ഡര് ചെയ്ത് എന്റെ കൈയ്യില് കിട്ടിയ സാധനങ്ങള് എല്ലാം തന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിരുന്നു എന്നാല് എന്റെ രണ്ടാമത്തെ ഷോപ്പിംഗ് എനിക്ക് വളരെ മോശം അനുഭവമാണ് സമ്മാനിച്ചത് കാരണം എന്റെ കൈയില് കിട്ടിയപ്പോഴാണ് മനസിലായത് ഞാന് ഫോട്ടോയില് കണ്ട നിറമോ ഗുണമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ത്രീ ഇന് വണ് കോമ്പോ ഓഫറിലൂടെയാണ് ഞാന് നാല് ബെഡ്ഷീറ്റുകള് സ്വന്തമാക്കിയത് ഫോട്ടോയില് കണ്ടപ്പോള് നിറവും അതിന്റെ ഡിസൈനും എനിക്ക് ഇഷ്ടമായിട്ടാണ് ഞാന് വീണ്ടും അത് ഓര്ഡര് ചെയ്തത് എന്നാല് നേരിട്ട് കിട്ടിയപ്പോള് ഞാന് ബോക്സ് തുറന്നു നോക്കിയപ്പോള് തന്നെ ഞെട്ടിപ്പോയി കാരണം വേറൊന്നുമല്ല കണ്ട മാത്രയില് തന്നെ നിറം മങ്ങിയ ബെഡ്ഷീറ്റുകളാണ് എന്റെ കൈയില് കിട്ടിയത് തുണിയുടെ ക്വാളിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കില് കൊടുത്ത പൈസയുടെ പകുതി പോലും ഇല്ല എന്നതാണ് വാസ്തവം രണ്ടു ബെഡ്ഷീറ്റ് നിവര്ത്തി നോക്കിയപ്പോള് അതിന്റെ രണ്ടു സൈഡുകള് പിന്നിയിട്ടുമുണ്ടായിരുന്നു നമ്മളൊന്ന് ശക്തിയായി വലിച്ചാല് തന്നെ കീറിപ്പോകുമോ എന്ന വിധത്തിലാണ് ബെഡ് ഷീറ്റുകള് ഉണ്ടായിരുന്നത് നിറങ്ങള് എല്ലാം തന്നെ ഒരു മങ്ങിയ നിറമാണ് ഉള്ളത് ഞാന് കുറച്ചു വെള്ളമെടുത്ത് മുക്കിനോക്കി കാരണം കളര് ഇളകിപ്പോകുമോ എന്ന് നോക്കണമല്ലോ അവര് പറഞ്ഞിരുന്നത് കളര് നോ ഫെയ്ഡ് എന്ന് ഒരിക്കലും കളര് പോകില്ല എന്നാ പറഞ്ഞിരുന്നത് ഞാന് നോക്കിയപ്പോള് എല്ലാത്തിന്റേയും കളര് നന്നായി തന്നെ ഇളകി പോകുന്നുണ്ടായിരുന്നു മൊത്തത്തില് ഞാന് മേടിച്ച എന്റെ ബെഡ്ഷീറ്റുകള് വളരെ നഷ്ടമാണ് എന്റെ എനിക്ക് കിട്ടിയത് വളരെ മോശം അനുഭവമാണ് ഉള്ളത് ഇനി ആരും ഇത് വാങ്ങരുത് പൈസ വെറുതെ നഷ്ടമാക്കരുത്